ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ഒരു ലഘു വിവരണം തരാമോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്നു പറയുന്നത് ജൂഡ് ആൻ്റണി നിർമ്മാണം വഹിച്ച രണ്ടായിരത്തിപ്പതിനെട്ടാണ് രണ്ടായിരത്തിപ്പതിനെട്ടെന്ന് പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ച ഒര് വർഷമായിരുന്നു രണ്ടായിരത്തിപ്പതിനെട്ട് കേരളം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ആ ഒരു വർഷം കടന്നു പോയത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രളയമാണ് രണ്ടായിരത്തിപ്പതിനെട്ടില് കേരളവും കേരളത്തിലെ ജനങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നത് അത് അങ്ങനെ ഒരു സംഭവം ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ നിരവധി വെല്ലുവിളികൾ ആ സിനിമയിൽ വരേണ്ടതാണ് പക്ഷേ വളരെ മനോഹരമായി എല്ലാവരേയും എന്താ ആ ഒരു വർഷത്തിലേക്ക് തിരികെ കൊണ്ടു പോകുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് ജൂഡ് ആൻ്റണി നിർമ്മിച്ചിരിക്കുന്നത് ടോവിനോ തോമസ് ആണ് ഇതിലെ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ആ ഒരു സിനിമയിലൂടെ തന്നെ നിരവധി ആളുകള് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന നിരവധി ആളുകളുടെ ഒരു ജീവിതം ആ ഒരു രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സ്വപനത്തോടെ കെട്ടിപ്പടുക്കിയ വീട് ഒരു പ്രളയത്തില് ഒലിച്ച് പോകുക എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും എളുപ്പമുള്ള കാര്യമല്ല അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തു അതെല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രളയം സംഭവിച്ചത് സിനിമയാക്കുക അതിന് വേണ്ടി ഒരു സെറ്റ് ഇടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സിനിമ കാണുമ്പോൾ അതൊരു സെറ്റ് ആണെന്നോ പ്രളയം ചിത്രീകരിച്ചിരിക്കുന്നതാണെന്ന് ഒര് തോന്നല് പോലും ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല